ഇന്ന് ഇന്ത്യൻ സാഹിത്യത്തിലും അതുപോലെ തന്നെ കവിതയിലും മലയാളഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത് അതിനുള്ള ഒരു വലിയൊരു ഉദാഹരണമാണ് ഇന്ത്യയിൽ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരമായ ജ്ഞാനപീഠം ലഭിച്ച അഞ്ച് മലയാളികളും ഇന്ന് മലയാളഭാഷയിൽ നിന്നുള്ള കവിതയും അതുപോലെതന്നെ സമഗ്ര സംഭാവനയ്ക്കുമാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത് ഇതുതന്നെയാണ് ഇന്ത്യയിൽ ഇന്ന് മലയാളഭാഷയ്ക്ക് എത്രയധികം പ്രാധാന്യം ഉണ്ടെന്നുള്ളതിനുള്ള തെളിവ്